ഇപ്പോൾ എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ ഈ തൊഴിലവസരങ്ങൾ കുറയാനുള്ള സാധ്യത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തൊഴിലാളികള് കൂടുതൽ ആൾക്കാരും അന്യ സംസ്ഥാനനങ്ങളിലേക്കൊക്കെ പോകുകയാണ് കാരണം ഇവിടെ സാലറി ബേസൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ സാലറിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പകുതി ആൾക്കാരും ഇപ്പോൾ വിദേശങ്ങളിലേക്കൊക്കെ പോവുകയാണ് ചെയ്യുന്നത് അതോടുകു അത് തന്നെ ഇപ്പോൾ തൊഴിനിലുള്ള ഭയങ്കര ഒരു കുറവ് സൃഷ്ടിക്കുന്നുണ്ട് അതിനിപ്പോൾ സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതല് എന്താ പറയുക ഇപ്പോൾ സർക്കാആർ അത്യാവശ്യം നല്ല സാലറിയില് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ജോബും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരും നമുക്കിപ്പോൾ ഇവിടെത്തന്നെ ജോലി ചെയ്യും അപ്പോൾ തൊഴിലവസരങ്ങള് കൂടുതൽ ഇതാക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇവിടെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ മെയിനായിട്ട് നോക്കുമ്പോൾ പി എസ് സി ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് കുറെ ആൾക്കാരുടെ ലിസ്റ്റ് ഒക്കെ നോക്കിക്കഴിയുമ്പോൾ പാസായ് അത്യാവശ്യം മാർക്ക് ബേസിലൊക്കെ നോക്കുവാണെങ്കിൽ റാങ്കും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാരെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം നല്ല രീതിക്ക് തന്നെ ഇതാക്കുക അപ്പോൾ അതിൽ നിന്നും കൂടുതൽ തൊഴിലും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് കൊണ്ട് ആൾക്കാർക്ക് അത്യാവശ്യം നല്ല ജോലിയും കാര്യങ്ങളും ഒക്കെ കിട്ടും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം